ആ ഹലോ ആ ഊബർ ടാക്സി അല്ലെ ആ ഇത് ഇവിടെ നിന്നാണ് കാട്ടിക്കുളത്തു നിന്നാണ് ജസ്റ്റ് ഒന്നു ഒരു മൂന്ന് മണിയാവുമ്പം തിരുനെല്ലി വരെ ഒന്ന് പോകണം അപ്പം എത്രയാവും റേറ്റ് ഒക്കെ ഓക്കേ ആ ആ ആ അപ്പം എത്ര സമയത്തിനുള്ളിൽ എത്താൻ കഴിയും ആ കുഴപ്പമില്ല ടൈം ഉണ്ട് എന്നാലും ഒരു മൂന്ന് മണി കൃത്യം എത്തണം പിന്നെ എ സിയൊക്കെയുള്ള വണ്ടി അല്ലെ ഓക്കേ ഓക്കേ പിന്നേ ഞങ്ങൾ അവിടെനിന്ന് ഇങ്ങോട്ട് വരാൻ ടൈം എടുക്കും നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ വെയ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം അവിടെനിന്ന് ഒരു ഏഴ് മണി ആവുമ്പോഴത്തേക്കും റിട്ടേൺ പിന്നേ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ആ ആ എടുത്തോളും അല്ലെ ആ ഓക്കേ പിന്നേ ബാക്കിയുള്ള സെറ്റിൽമെൻ്റ് ഒക്കെയോ ഓ റെഡി ആണല്ലേ ഓക്കേ ഓക്കേ